ആദ്യകാലങ്ങളിൽ ചെറുപ്പകാലത്ത് ഞാൻ മലയാള അക്ഷരം ആദ്യമായി പഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്നാണ് അമ്മയാണ് എന്നെ മലയാള അക്ഷരങ്ങൾ പഠിപ്പിച്ചത് മലയാള അക്ഷരങ്ങൾ ചെറുപ്പം കാലഘട്ടത്ത് അരിയിൽ അക്ഷരങ്ങൾ എഴുതാൻ അമ്മ എന്നെ പഠിപ്പിച്ചു അമ്മ ഒരൂ സ്ഥിരമായ ഒരു കാര്യം വരുന്നു എന്ന് ഒരു ഉച്ച സമയാകുമ്പോൾ ഒരു പന്ത്രണ്ട് മണി സമയമാകുമ്പോൾ അമ്മ എന്നെ അരിയിൽ ചോറ് വയ്ക്കുന്നതിന് മുമ്പ് അരി എടുത്തിട്ട് അരി അരിയിൽ അക്ഷരങ്ങൾ എഴുതിക്കുന്നു അങ്ങനെയാണ് എൻ്റെ ചെറുപ്പ കാലത്ത് ഞാൻ ആദ്യമായി അക്ഷരം പഠിക്കുന്നത് അതിന് ശേഷം ഞാൻ സ്കൂളിൽ ചേർന്ന് സ്കൂളിൽ യൂ ക്കേ ജി എൽ ക്കേ ജി തൊട്ടേ പത്താം ക്ളാസ്സ് വരെ ഞാൻ മലയാളം പഠിച്ചിരുന്നു അങ്ങനെ അവടെ നിന്ന് ഞാൻ മലയാളം എഴുതാനും വായിക്കാനുമൊക്കെ പഠിച്ചു ബാക്കി അക്ഷരങ്ങളും മലയാളത്തിൻ്റെ ഗ്രാമറും അതിൻ്റെ പല തരത്തിലുള്ള അക്ഷരങ്ങൾ ഒക്കെ പഠിച്ചത് സ്കൂളിൽ നിന്ന് തന്നെയാണ് സ്കൂള് കാല ഘട്ടങ്ങൾ ഉപന്യാസം പഠിക്കുവാനും പലതരത്തിലുള്ള പദ്യപാരായണത്തിൽ പദ്യം വായിക്കുവാനും പലതരത്തിലുള്ള ബുക്സ് പുസ്തകങ്ങൾ മലയാള പുസ്തകങ്ങൾ നോവലുകൾ വായിക്കാനും പദ്യപാരായണ പദ്യപാരായണ മത്സരങ്ങളൊക്കെ പങ്കുചേരാനും സാധ്യമായി ഇത് മലയാളം മലയാളം ഇന്ന് ഇത് മലയാളം പഠിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ പദ്യപാരായണം മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സാധ്യമായത് അത് പോലെ തന്നെ ന്യൂസ് പേപ്പറുകൾ ഒക്കെ കൂടുതലായി വായിച്ചു ന്യൂസ് പേപ്പർ വായിച്ചു പരിശീലിച്ചാണ് ഞാൻ വായന കൂടുതലായിട്ടും മലയാളത്തിൽ പഠിച്ചത് തന്നെ മാത്രമല്ല മലയാളത്തിൽ ഇത് നമുക്ക് മറ്റൊരു മലയാളം പഠിച്ചത് ഇവിടെ നമ്മുടെ മാതൃഭാഷയായ മലയാളം പഠിച്ചത് കൊണ്ട് നമ്മുടെ സ്വന്തം നാടിനുള്ള ആൾക്കാരോട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നു ഒരു സ്ഥലത്ത് ചെന്നാൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു മലയാള അക്ഷരം മലയാളം മലയാളം പഠിച്ചതു കൊണ്ടാണ് നമുക്ക് എനിക്ക് ഇങ്ങനെ ഓരോരുത്തരോട് സംസാരിക്കാനും കാര്യങ്ങൾ ചിന്തകൾ പങ്കു വയ്ക്കാനും ഒക്കെ സാധിക്കുന്നത് നമ്മുടെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പങ്കു വയ്ക്കാനും നമ്മുടെ ആവശ്യങ്ങൾ പറയാനും നമ്മുടെ ഐഡ്യാസ്സ് പറയാനും ഒക്കെ നമ്മളെ അതിന് സഹായിച്ചത് ഈ മലയാളം അത് മലയാളം ഭാഷ തന്നെയാണ് മലയാളം ഭാഷ അറിയാതെ ചെന്ന എനിക്കും മറ്റ് മറ്റുള്ളവരോട് സംസാരിക്കാനോ അവൻ്റെ ഐഡിയകൾ പറയാനോ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പങ്കു വയ്ക്കാനോ ഒന്നിനും സാധിക്കത്തില്ലായിരുന്നു അതുകൊണ്ട് മലയാളം പഠിച്ചതു കൊണ്ട് എനിക്ക് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നെ മലയാളം പഠിപ്പിച്ച അമ്മേനെയും സ്കൂളിൽ എന്നെ മലയാളം പഠിപ്പിച്ച ടീച്ചർമ്മാരെ ഞാൻ ഇന്നുമോർക്കുന്നു പണ്ട് കാലങ്ങളിൽ മലയാളത്തിലോട്ട് പിന്നോട്ടായ എന്നെ സ്കൂളിലെ ടീച്ചേഴ്സും വീട്ടിലെ മാതാപിതാക്കളുമാണ് വായിച്ചു വായിക്കാൻ വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് മാത്രമല്ല മലയാള അക്ഷരങ്ങൾക്ക് പിന്നോട്ടായ എന്നെ സ്കൂൾ ടീച്ചറാണ് പ്രത്യേകമായി പരിശീലനം തന്നു ഇനിയും മലയാളത്തിൽ മുന്നോട്ട് കൊണ്ടു വരാൻ സാധിച്ചു അത് മാത്രമല്ല സ്കൂളുകളിൽ മലയാള സബ്ജക്റ്റിന് ഏറ്റവും കൂടുതൽ മാർക്കോടെ വിജയിക്കാനും എനിക്ക് ബാക്കി എല്ലാ സബ്ജക്റ്റിനേക്കാളും ഏറ്റവും കൂടുതൽ മാർക്കോടെ വിജയിക്കാനും സാധിച്ചു അത് അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് പല തരത്തിലുള്ള മത്സരങ്ങളിലും പങ്കെടുക്കുവാനും മലയാള ഉപന്യാസം ഉപന്യാസം എഴുത്തിലും അതുപോലെ തന്നെ പദ്യപാരായണത്തിലും ഒക്കെ മത്സരിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഓരോരോ പ്രാർത്ഥനകളിലായാലും ഓരോരോ ചടങ്ങുകളിലായാലും പങ്കു ചേരാനും ഒരു പോലെ നമ്മുടെ ഐഡിയകൾ നമ്മുടെ എന്തെങ്കിലും മത്സരങ്ങൾ വരികയാണെങ്കിൽ എന്തെങ്കിലും ഗ്രൂപ്പ് ആക്റ്റിവിറ്റി വരികയാണ് വരികയാണെങ്കിലും ഏറ്റവും മനോഹരമായ ഐഡിയകൾ പങ്കു വയ്ക്കാനും എനിക്ക് മലയാള ഭാഷ കൊണ്ട് സാധിക്കുന്നു